ഞാൻ ഒരു കത്തോലിക്കാ വിശ്വാസിയാണ് ഞാൻ എപ്പോഴും വായിക്കുന്നത് എൻ്റെ മതഗ്രന്ഥം ബൈബിളാണ് ഞാൻ അതിനകത്ത് ഏറ്റവും എന്നെ സ്വാധീനിച്ചത് ഈശോ പറയുന്നുണ്ട് നിങ്ങളോടു മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്കു വേണ്ടി നിങ്ങൾ നിങ്ങളത് അവരോട് അതുപോലെ ചെയ്യണം നമ്മളോട് എപ്പോഴും എല്ലാവരും സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കണം നമ്മളോടു കരുണ കാണിക്കണം നമ്മൾ പറയുന്നത് അനുസരിക്കണം നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം നമ്മളെ എല്ലാവരും കരുതണം നമുക്കെല്ലാവരും നമ്മൾ ചോദിക്കുന്നതെല്ലാം തരണം നമ്മളെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പങ്കെടുപ്പിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലും അതുപോലെ കാണണം അവരെ സ്നേഹിക്കണം നമ്മൾ അവർക്ക് നന്മ ചെയ്യണം അവർക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കണം അവർക്ക് വിജയങ്ങളുണ്ടാകണമെന്നാഗ്രഹിക്കണം അവരോട് കരുണ കാണിക്കണം അവരെ സ്നേഹിക്കണം അവരെ ചേർത്തു നിർത്തണം ഇതൊക്കെയാണ് ഞാൻ ഇതൊക്കെ അവർക്കും അങ്ങനെ ആകണം എന്നാണ് നമ്മളോട് ഈശോ പറഞ്ഞുവെക്കുന്നത് ആ രീതിയിലാണ് അതാണ് എനിക്ക് ആ എന്നെ ഒത്തിരിയും സ്വാധീനിച്ച ബൈബിൾ വാക്യം ആണത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതോ അതോ മറ്റുള്ളവരിലോട് നി മറ്റുള്ളവരോടു നിങ്ങൾ അതുപോലെ പെരുമാറണം ഒരു ഭയങ്കരം എന്നെ സ്വാധീനിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ബൈബിളിലെ പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഇച്ചിരിയൊക്ക പ്രശ്നങ്ങൾ സ്വാഭാവികം നമ്മുടെ സ്വഭാവത്തിലൊക്ക വന്നാലും ഇതു പെട്ടെന്ന് ഓർത്താൽ മതി ഈശോ എന്തോ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അതാണ് നിയമവും പ്രവാചകന്മാരും നമ്മളോടു പറയുന്നത് ഓക്കേ താങ്ക് യൂ